ഹലോ ഞാൻ സ്വിഗ്ഗിയിൽ ഒരു ഹോട്ട് കോഫി ഓഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഓഡർ ഐ ഡി ഒന്ന് നാല് പതിമൂന്ന് അഞ്ച് ഏഴ് അപ്പോൾ അത് എനിക്ക് മാക്സിമം ചൂടായിട്ട് തന്നെ ഡെലിവറി ചെയ്യുമ്പോൾ എനിക്ക് എത്തിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് റെസ്റ്റോറൻ്റിന് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് വലിയ ഉപകാരം ആയിരിക്കും അതിപ്പോൾ ഒരു ഫ്ലാസ്കിലോ മറ്റോ കൊടുത്തുവിടാൻ പറ്റിക്കഴിഞ്ഞാൽ അതൊരു ഉപകാരം ആയിരിക്കും അതിപ്പം കൊടുത്തുവിടാൻ അങ്ങനെ പറഞ്ഞതിൻ്റെ കാര്യം വേറൊന്നും അല്ല എനി ജോലി എടുത്ത് തിരക്കാണ് അപ്പം ഇതുകൊണ്ട് വരുമ്പോൾത്തന്നെ എടുത്ത് കുടിക്കാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ ഫ്ലാസ്കിൽ കൊടുത്തു വിടുകയാണെങ്കിൽ അതിൻ്റെ അഡീഷണൽ ചാർജെസ് എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് അത് പേയ്മെൻ്റിൽ പരിഹരിക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സഹായം നിങ്ങളുടെ റെസ്റ്റോറൻ്റ് ചെയ്തു തരണം